ആമീസിൻ്റെ പുട്ട് പൊടി ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ പൊടിവെച്ച് പുട്ടുണ്ടാക്കിയതിനുശേഷം കുട്ടികളൊക്കെ നന്നായിട്ട് പുട്ട് കഴിക്കുന്നുണ്ട് പൊതുവെ വീട്ടിൽ പുട്ടുണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പൊടി മാറ്റിയതിനുശേഷം നല്ല രുചിയുള്ള പുട്ടെനിക്കവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് വളരെ നല്ല പുട്ടാണ് ആമീസിൻ്റെ പുട്ട് പൊടി പുട്ട് പൊടി മാത്രമല്ല അവരുടെ ബാക്കി ഒറൊട്ടി പൊടി നൂൽപ്പുട്ടിൻ്റെ പൊടി അങ്ങനത്തെ പൊടികളൊക്കെ വളരെ നല്ലതാണ് ഞാനിതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നല്ലതാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഈ സാധനം കൂടാതെ ഇവര മസാലപ്പൊടികളും എല്ലാം നല്ല നല്ല പ്രോ നല്ല സാധനങ്ങളാണ് ഒരുപാടിഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള കടകളിൽ ഇപ്പോൾ കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് എനിക്ക് വാങ്ങാനും എളുപ്പമാണ്